കാരണം ഒരു ഓരോരോ കലാകാരനെയും വാർത്തു കൊണ്ടുവരുന്നത് ഇന്ത്യയുടെയും കൂടെ ആവശ്യമാണ് കാരണം ഒളിമ്പിക്സ് പോലുള്ള ഗെയിമുകളിൽ ഇന്ത്യയിലെ പ്രതിനിധിക്കാറ് പ്രതിനിധീകരിക്കാൻ ആളുകൾ വേണമെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു മുൻ നിരയിലെത്തിക്കണമെങ്കിൽ നമ്മുടെ സ്കൂളിൽ നിന്നേ അതിന് പരിശീലനം കൊടുക്കണം അപ്പം അതിന് ഗവൺമെന്റിന്റെ ശക്തമായ പിന്തുടർന്ന് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട കടമയും ഗവൺമെൻറ്സ്നാണുള്ളത് ഓരോ ഇപ്പം ഒരു ആൾ അഭിനവ് മിന്ദ്രാ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒളിമ്പിക്സിൽ ഗോൾഡൻ മെഡല് വാങ്ങിയ ഒരു വ്യക്തിയാണ് അപ്പോൾ അയാൾ വാങ്ങുന്നത് നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും അഭിമാന നിമിഷമാണ് അപ്പം അങ്ങനെയുള്ള ഓരോരോ പിന്നെ വ്യക്തിയെയും രൂപീകരിക്കുന്നേന് സ്കൂളുകളിലും ഗവൺമെൻറ്സിനും തുല്യമായിട്ടുള്ള ഇതുണ്ട് അപ്പോൾ നമ്മൾ ലാഭം എന്നു പറയുന്നത് നമ്മുടെ നമ്മുടെ ഗവ അതായത് നമ്മുടെ ഇന്ത്യയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ചിന്ത വേണം നമുക്ക് അല്ലാതെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരിതിനല്ല നമുക്ക് വേണ്ടി നമ്മുടെ ഇന്ത്യ എന്ന നമ്മുടെ കൺട്രി എല്ലാവർക്കും അതായത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അപ്പോൾ ഓരോ വിജയവും എല്ലാവരുടെയും ആണ് എന്ന് വിചാരിച്ച് ലാഭനഷ്ടങ്ങൾ ഒന്നും ഇതാക്കാതെ നമുക്ക് എല്ലാവരുടെയും കൂടിയാണ് അപ്പോൾ ഓരോ പ്രോത്സാഹിപ്പിക്കേണ്ട കടമയും അങ്ങനെയുള്ള അങ്ങനെ സഹായിക്കേണ്ടതും ഓരോരോ സ്കൂളുകൾക്കും അതിന് പീ റ്റി ടീച്ചേഴ്സിനെയും ഗവൺമെൻറ് പ്രത്യേകം നിയമിച്ചിട്ടുണ്ട്